ഞാൻ നന്നായി ചിരിപ്പിച്ച എന്നെ ഒരു പുസ്തകമാണ് ഗലിവേഴ്സ് ട്രാവൽ ഈ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ കടലിൽ പെട്ട് വേറെ ഒരു ചെ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെടുന്നു ഈ ദ്വീപിലെ വാസികൾ ചെറിയ മനുഷ്യരാണ് വലിപ്പവ്യത്യാസം നല്ലോണമുണ്ട് മനുഷ്യരുടെ വലുപ്പവും ഈ ഗലിവറിൻ്റെ വലുപ്പവും നല്ല വലിയ വ്യത്യാസമുണ്ട് ഗലിവറിന് നല്ല വലുപ്പമാണ് ഒരു ജയന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗലിവറിനെ ഇവരൊരു മോൺസ്റ്ററായി കാണുന്നു ഗലിവർ ആരെന്നോ എന്തെന്നോ ഒന്നും അറിയാതെ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യരെ ഈ ചെറിയ മനുഷ്യർ കണ്ടുവരുന്നത് അതിനാൽ എല്ലാ ഈ ചെറിയ മനുഷ്യർ ഈ ഗലിവറിനെ കണ്ടു ഭയപ്പെടുന്നു അതേപോലെ അവരുമായിട്ട് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ഒത്തുക്കൂടുന്നതും അങ്ങനെയുള്ള കഥയാണ് ഗലിവർ ഇതിൽ ചെറിയ മനുഷ്യരും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും എല്ലാം ഇത് ഒരു ഫുള്ള് ചിരിപ്പിക്കുന്ന കഥയായി മാറ്റുന്നു